സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്നു ചോദിച്ചാൽ കർണ്ണാടകയാണ് ഇവിടെ ഓണം ആവുമ്പോഴേക്കും അവിടെ നിന്ന് നല്ല നല്ല പൂക്കളിങ്ങോട്ടേക്കു വരും അപ്പം അവിടെ ഇപ്പം പൂക്കളുടെ തോട്ടങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാകും സൂര്യകാന്തി ചെണ്ടുമല്ലി പിന്നെ വാടാർമുല്ല അങ്ങനത്തെ ഇഷ്ടംപോലെ ഫ്ളവേഴ്സിൻ്റെ തോട്ടങ്ങൾ അവിടെ ഇപ്പം ആ സമയമാണ് പിന്നെ ഇഷ്ടം പോലെ പച്ചക്കറിത്തോട്ടങ്ങൾ അതൊക്കെ കർണ്ണാടകയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവിടെ ജീവിതസാഹചര്യങ്ങൾ അവിടത്തെ ആൾക്കാരെ അതൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് മെയിനായി അവിടെ ഇപ്പം കാണാൻ ഉള്ളത് സൂര്യകാന്തിത്തോട്ടം ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ നല്ല ഭംഗിയായിട്ട് അവർ സന്ദർശകരെ ഒരുക്കി അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്